എനിക്ക് ഫോണിലും ലാപ് ടോപ്പിലും ടൈപ്പ് ചെയ്യാനാണ് എളുപ്പം കാരണം എന്താണെന്നറിയുമോ നമ്മൾ എഴുതുമ്പോൾ നമ്മളിങ്ങനെ എഴുതണം പക്ഷേ നമ്മൾ ഫോണിൽ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ആ അവിടെ ഇങ്ങനെ വന്നിട്ടുണ്ടാകും അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് എഴുതാൻ ചിലപ്പം നമ്മൾ തുടങ്ങിയിട്ടുണ്ടാവുകയുള്ളൂ മൂന്ന് വാക്കുകളൊക്കെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക പക്ഷേ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വാക്കുകൾ കുറച്ച് സ്പേസ് ഇട്ടിട്ട് പിന്നെ വേഗം വേഗം നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് വേഗം വേഗം വരും അപ്പം നമുക്ക് വേഗം വേഗം എഴുതാൻ പറ്റും അപ്പം എനിക്ക് തോന്നുന്നത് ഹൈടെക് ആണ് കൂടുതൽ ഇത് പണ്ട് പേനയും പേപ്പറും എടുത്ത് നമ്മൾ വൃത്തിക്ക് ഫുൾ കമ്പ്ലീറ്റ് കമ്പ്ലീറ്റ് എഴുതി കുത്തും കോമയൊക്കെ ഇടണം ഇതിപ്പം ജസ്റ്റ് ഒന്ന് അവിടെ ക്ളച്ച് ചെയ്താൽ നമുക്ക് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽത്തന്നെ നമുക്ക് ഇതാക്കാൻ പറ്റും ഫുൾ ടച്ചിങ് ആണല്ലോ എന്താണെങ്കിലും ടച്ച് ആണ് നമ്മൾ കൈയും കൊണ്ട് ചുമ്മാ ടൈപ്പ് ചെയ്താൽമതി ജസ്റ്റ് ടച്ച് ചെയ്താൽമതി പക്ഷെ എഴുതുകയാണേ നമ്മൾ പെൻ വെച്ച് കുത്തിവരച്ച് വൃത്തിക്ക് നല്ല ഉരുട്ടി ഉരുട്ടി എഴുതണം അപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് ഇഷ്ടം ടൈപ്പ് ചെയ്യാനാണ് എഴുതുന്നതിനേക്കാളും ഇഷ്ടം പണ്ടത്തെ എഴുത്തിനേക്കാളും എനിക്ക് ഇഷ്ടം ടൈപ്പ് ചെയ്യാനാണ് അല്ലെങ്കിൽ പ്രിന്റ് എടുക്കുക അങ്ങനെയൊക്കെയാണ് ഇഷ്ടം എല്ലാവരും അങ്ങനെ തന്നെയാണ് ഇപ്പം എഴുതുന്നതിനേക്കാളും ഒരു ഇത് നമ്മൾ പ്രിൻറ് എടുക്കുകയാണ് മക്കൾ വരെ അത്രയും പേപ്പർ എഴുതുന്നതിനേക്കാളും അവർ പ്രിൻറ് എടുത്തുവെച്ച് അങ്ങനെ പഠിക്കുന്ന ശ്രദ്ധിക്കുന്ന ഒത്തിരി ആൾക്കാരെ എനിക്ക് അറിയാം